ഞാൻ ആസൂസ് എന്ന എൻ്റെ ലാപ്ടോപ്പ് വളരെ മനോഹരമായ രീതിയിൽ അത് പ്രവർത്തിക്കുന്നു അതു മാത്രമല്ല ഇതുവരെ യാതൊരു കംപ്ലൈന്റും എൻ്റെ ലാപ്ടോപ്പിന് ഇല്ല അപ്പോൾ ഞാൻ ഈ പ്രോഡക്ടിൽ വളരെ സന്തുഷ്ടവാനാണ്